ഞാന് ഗൂഗിള് മാപ്പ് ഉപയോഗിച്ചു യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ എറണാകുളത്ത് പോകാന് വേണ്ടി സ്ഥലം കറക്റ്റ് അറിയാത്തതിനാല് അത് അവർ നമുക്ക് ഗൂഗിള് മാപ്പ് വഴി എന്റെ ലൊക്കേഷൻ അയച്ചു തരികയും ഞാനും ഹസ്ബൻ്റും കൂടി ഈ റൂട്ട് മാപ്പ് വച്ച് പോവുകയും ചെയ്തു ഒരു തരത്തിൽ ഉപകാരമാണ് എങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഇതൊരു ഒരു ഒരു ഏരിയയിൽ ചെല്ലുമ്പം ഇത് പല വഴികളായിരിക്കും കാണിക്കുന്നത് ഈ പല വഴികൾ കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പോകേണ്ട റൂട്ടില് നിന്നും കുറേ കറങ്ങി ദൂരെയാണ് ഒത്തിരി യാത്ര ചെയ്തിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അവർ ഡയറക്റ്റ് വരുന്ന വഴി ഇങ്ങനെ ആയിരിക്കും ഈ റൂട്ട് ആയിരുന്നിരിക്കാം അതായിരിക്കും ഏറ്റവും എളുപ്പം വരാനുള്ളതും പ്രശ്നമില്ലാത്തതും എന്ന് എന്നാല് നമുക്ക് റൂട്ട് മാപ്പ് വഴി പല വഴികളായത് കൊണ്ട് നമുക്ക് അറിയാന് വയ്യാത്ത ഒരു വ്യക്തിയാണ് പോവുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അതിന്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നാൽ കുറേ ഒക്കെ ഒത്തിരി ഉപയോഗപ്പെടുകയും ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ എങ്കിലും ആ സ്ഥലത്ത് എത്താന് വേണ്ടി ഒരു തരത്തിലും നമ്മൾക്ക് അറിയാത്തവര്ക്കാന്നെങ്കില് ഈ ഗൂഗിള് മാപ്പ് വഴി പോകുന്നതു കൊണ്ട് നമുക്ക് ആ സ്ഥലത്തെത്തും പക്ഷെ പല വഴികളായത് കൊണ്ട് കണ്ഫ്യൂഷൻ ആവുകയും ചിലപ്പോള് ഒത്തിരി നമ്മള് ഒത്തിരി നേരം അധികം സഞ്ചരിക്കേണ്ടിയും വരുന്നുണ്ട് നമ്മുടെ സമയം അധികം പോവുന്നുണ്ട് അങ്ങനെ അതിനാൽ ഇങ്ങനെയുള്ളത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിലും കുറേയൊക്കെ അതിന് ദോഷങ്ങളുമുണ്ട് ഒരിക്കലും ഒരു അറിയാന് വയ്യാത്ത ഒരിടത്ത് ചെല്ലണമെങ്കില് നമുക്ക് പണ്ടുള്ള സാഹചര്യത്തെ അപേക്ഷിച്ച് ഇപ്പം നമുക്ക് അതിനൊത്തിരി അവസരങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഗൂഗിള് മാപ്പ് അയച്ച് തന്നാൽ നമുക്ക് ആ ലൊക്കേഷന് നമുക്ക ആ റൂട്ട് നോക്കി പോവാം പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് കൃത്യമാണ് അവർ ഏത് റൂട്ട് മാപ്പ് കാണിച്ചാലും അവർ അത് കറക്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കും പക്ഷെ ഈ പല വഴികളൊക്കെ വരുന്നതു കൊണ്ട് നമുക്ക് ചിലപ്പം അതിനകത്ത് ഒരു കണ്ഫ്യൂഷന് വരാറുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് ഇച്ചിരി ചുറ്റി പോവേണ്ടി സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഗൂഗിള് മാപ്പ് വഴി പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അ പിന്നെ അതില്ലാതെ നമുക്ക് പണ്ടുള്ള വഴി അത് വഴി പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എളുപ്പം അങ്ങെത്താം എന്നുള്ള ഒരു വഴി നമ്മൾക്ക് അറിയാമെങ്കില് അങ്ങനെ പോകണം അല്ല ഒരു സാധനത്തിനെ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കില് നമ്മൾ ഗൂഗിള് മാപ്പ് ആശ്രയിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഗൂഗിള് മാപ്പ് ഉപയോഗിച്ചു ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് ഏറെ എല്ലാ വ്യക്തികളും ഉപയോഗിക്കുന്നുണ്ട് അതു ഉപയോഗിച്ചു യാത്ര ചെയ്യുന്നുണ്ട് അതിനാലാന് അതിൻ്റെതായ ന ബെനെഫിറ്റുമുണ്ട് പിന്നെ അറിയാന് വയ്യാത്തവര്ക്ക് എളുപ്പം ചെല്ലാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഏതൊരു ഏര്യയിലായാലും നമുക്ക് ഒരു ലൊക്കേഷൻ ഇട്ട് നമുക്ക് അവിടെ ചെല്ലാം നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അത് കറക്റ്റ് കണ്ടു പിടിക്കാന് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഗൂഗിള് മാപ്പ് നല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് അത് എന്തായാലും എല്ലാവര്ക്കും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഏറെക്കുറേ വ്യകതികള്ക്ക് അതൊരു ഉപയോഗപ്പെടുന്നുണ്ട് നമുക്ക് ഒരു സ്ഥാപനം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു അത് കണ്ടുപിടിക്കാനൊക്കെയാണെങ്കില് ഗൂഗ്ൾ ലൊക്കേഷൻ ഇടുമ്പം നമുക്ക് അത് എളുപ്പം അത് സാധിക്കുന്നുണ്ട് അതിനാൽ എനിക്ക് സാങ്കേതികവിദ്യ ഉപയോഗമുള്ള ഈ ഗൂഗിള് മാപ്പ് വച്ചുള്ള യാത്ര ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് എല്ലാവരും അതൊരു ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ട്രൈ ചെയ്തു നോക്കണം എന്നാണ് എന്റെ എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും അതിന്റെ ബെനിഫിറ്റ് എന്തുവാണെന്ന് എല്ലാരും ഒന്നറിഞ്ഞിരിക്കണം അതാണ് എനിക്ക് തോന്നുന്നത്